ഇപ്പോൾ ജോലി സ്ഥലത്തൊക്കെ നമ്മള് മെയിനായിട്ടെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മള് ഒരാളുടെ കീഴിൽ നിൽക്കുന്ന ഒര് അവസ്ഥയൊക്കെ ഉണ്ടാകും അപ്പം ആ സമയങ്ങളിലൊക്കെ അവര് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ കേട്ടിട്ടില്ലെങ്കിൽ നമ്മളെ ചിലപ്പോൾ പിരിച്ചുവിടാനും നമ്മളെ ശകാരിക്കാനൊക്കെ അവർക്ക് ഉത്തരവാദിത്തവും കാര്യങ്ങളൊക്കെയുണ്ട് അപ്പോൾ അവര് നമ്മളെ നല്ല രീതിയില് ഒരു കാര്യം ചെയ്യാൻ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ശ്രമിച്ച് കഴിഞ്ഞാൽ മാത്രമേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ ചുമതലയും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്തത് എന്തെങ്കിലുമൊക്കെ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടീട്ട് തരുള്ളൂ അപ്പം നമ്മള് ഒരു ജോലി സ്ഥലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പ എനിക്കുണ്ടായ ഒരു അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇപ്പം ജോലി ചെയ്യുന്ന സ്ഥലത്ത് എനിക്ക് എൻ്റെ എന്താ പറയുക ഒരു പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പം അതിനെ നല്ല രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം എനിക്കത് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടില്ല അപ്പോൾ അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുറച്ച് പാടുള്ളൊരു പ്രൊജക്റ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു രണ്ടു ദിവസത്തിനുള്ളിൽ കംപ്ലീറ്റ് ആകണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് എനിക്ക് തന്നത് പക്ഷേ എനിക്കത് രണ്ടു ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയില്ല ഒരു മൂന്ന് നാല് ദിവസം എടുത്തു എന്നാലും ഞാൻ അത് കംപ്ലീറ്റാക്കി എൻ്റെ ഒരു കഴിവിൻ്റെ പരമാവധി നോക്കിയിട്ട് ഞാനത് കംപ്ലീറ്റ് ആക്കാൻ ഒക്കെ ശ്രമിച്ചിട്ടുണ്ട് ഇതാണ് മെയിനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞ് കഴിഞ്ഞാല്